അങ്ങനെ ഒരു തീരുമാനമെടുക്കേണ്ട സന്ദർഭമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഉണ്ടായത് പറയുകയാണെങ്കില് ഈ ഡെലിവറീൻ്റെ സമയത്ത് കുനിയാ കുനിയാൻ പാടില്ല കുനിയാൻ പാടില്ല അടങ്ങി നിക്കണം അടിച്ചു വാരരുത് അലക്കാൻ പാടില്ല അങ്ങനത്തേക്കെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളും കുറച്ച് ഉപദേശങ്ങളൊക്കെ പ കേൾക്കാറുണ്ട് അമ്മയാണെങ്കിലും വീട്ടിലുള്ളവരും മുതിർന്നവരൊക്കെ നമ്മളെ കുറെ ഉപദേശിക്കാറുണ്ട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് നടക്കണം അടിച്ചു വാരരുത് അടിച്ചു വാരണം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങള് പറയുന്നുണ്ട് നമുക്കാണേൽ അതൊന്നും ചെയ്യാൻ പറ്റുകയും ഇല്ല നമ്മടെ ഓരോ ബുദ്ധിമുട്ടും കുഞ്ഞു പള്ളേലുള്ള സമയത്തൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് കുനിയാൻ പറ്റില്ല അടിച്ചു വാരാൻ പറ്റില്ല ആ സമയത്തൊക്കെ ഒരുപാട് ഉപദേശങ്ങൾ കേൾക്കേണ്ടി വരാറുണ്ട് നമ്മള് പിന്നെ അത് കേൾക്കുക അല്ലാണ്ട് പിന്നെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ പിന്നെ കുഞ്ഞുണ്ടായി കഴിഞ്ഞാലും അതേ പോലെ തന്നെയാണ് കുഞ്ഞിനെ നോക്കണില്ല കഴിക്കാൻ സമ കറക്റ്റ് സമയത്ത് കൊടുക്കാൻ കൊടുക്കാറില്ല ഉറക്കലില്ല അങ്ങനത്തെയൊക്കെ ഒരുപാട് കാര്യങ്ങള് കേൾക്കാറുണ്ട്